മലയാള ഭാഷ എൻ്റെ എൻ്റെ മാതൃഭാഷയായതിൽ ഞാൻ വളരെ സന്തോഷം കാരണം നമ്മുടെ ഭാഷ നമുക്ക് അല്ലാതെ വേറാർക്കും ഇത്രയും അധികം നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കത്തില്ല എല്ലാവരും തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് അക്ഷരങ്ങള് നമ്മുടെ നാവിലേക്ക് വഴങ്ങി വരാനായിട്ട് അത്രയും അധികം വഴക്കം വേണ്ട ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം ഭാഷ മലയാള ഭാഷ മലയാള സംസ്കാര സ ഭാഷയും സംസ്കാരവും ഒക്കെ നമുക്ക് ഭയങ്കര എവട് എവിടെയും വേറിട്ട് നിൽക്കുന്ന ഒരു സംസാര ഭാഷയാണ് ആൾക്കാര് ഇപ്പം പുറത്ത് നിന്നൊക്കെ ഉള്ള ആൾക്കാരാണേലും പലരും ഇതിനേപ്പറ്റി സാ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്കൊക്കെ പഠിക്കാൻ സാധിക്കും പക്ഷേ നമ്മള് പറയുന്നത് പോലെ പറയാനൊട്ട് അവർക്ക് സാധിക്കത്തില്ല അക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരങ്ങള് ചില്ലക്ഷരങ്ങളും ഇതൊക്കെ ഒക്കെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണെന്നാണവര് പറയുന്നത് പക്ഷേ അവര് ശ്രമിക്കാറുണ്ട് കേട്ടോ നമുക്ക് പക്ഷേ എവിടെ ചെന്നാലും നമ്മൾ ഈ മലയാള ഭാഷ സംസാരിച്ചവർക്ക് എവിടെ ചെന്നാലും മറ്റുള്ള് ഭാഷകള് പഠിക്കാനും കൈകാര്യം ചെയ്യാനും വളരെ എളുപ്പമാണ് നമ്മള് മലയാളികളെവിടെ ചെന്നാലും ആ നാട്ടിലെ ഭാഷകള് വളരെ വളരെ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും പക്ഷേ നമ്മുടെ നാട്ടില് വന്നിട്ടാർക്കും തന്നെയൊര് ഭാഷകള് നമ്മള് പറയുന്നത് പോലെ പറയാനോ കൈകാര്യം ചെയ്യാനോ സാധിക്കാറില്ല സാധിക്കാറില്ല എന്നല്ല കുറച്ചക്ഷരത്തിനൊക്കെ വളരെ വ്യത്യാസങ്ങൾ ഉണ്ട് അവര് പറയുന്നത് നമുക്ക് മനസിലാകും അവര് നമ്മുടെ മലയാള ഭാഷ പറയുമ്പഴേക്കും മനസിലാകുവെങ്കിൽ തന്നെ നമ്മളുച്ചരിക്കുന്നതു പോലെ ഉച്ചരിക്കാനവർക്ക് സാധിക്കാറില്ല ഇതും മലയാളത്തിലെ അക്ഷരങ്ങളോട് നമുക്ക് ഭയങ്കര ഇഷ്ടം ഇതുണ്ട് വഴക്കവായിട്ട് കിടക്കുന്ന ഒര് രീതിയാണ് നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം